ജീവിതശൈലി രോഗങ്ങള്ക്ക് യോഗ ഒരു മറുമരുന്ന് തന്നെയാണ് നമ്മുടെ ഒരുപാട് ജീവിതശൈലി രോഗങ്ങള്ക്ക് യോഗ ഒരു മറുപടി തന്നെയാണ് കാരണം നമ്മുടെ നമ്മുടെ ജീവിതശൈലിയിൽ ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണല്ലോ നമ്മൾ ഈ യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം പല തരത്തിലുള്ള യോഗ അഭ്യാസങ്ങളുണ്ട് നമ്മൾക്ക് തന്നെ അറിയാം അപ്പം അതില് ഒരു നമ്മുടെ ജീവിത രീതിയിൽ ഒരു മാറ്റം വരുത്തുക എന്നുള്ളത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങള്ക്ക് ഒരു മറുപടി തന്നെയാണ് അതായത് നമ്മുടെ ഷുഗറ് കൊളസ്ട്രോള് ബീപ്പി പോലെയുള്ള ഒരുപാട് രോഗങ്ങള്ക്ക് നമ്മൾക്ക് ഇത് പറ്റും ഇപ്പം നമ്മൾ യോഗ ചെയ്തു നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് നമ്മുടെ യോഗ നമുക്ക് സാധിക്കും ഇപ്പം ഒരു പാട് പല രോഗങ്ങള്ക്കും പല രീതിയിലുള്ള യോഗയാണ് നമ്മൾ അഭ്യസിക്കുക അഭ്യസിക്കുന്നത് എങ്കിലും അതിന് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതം കൊണ്ട് വരാനൊക്കെ ആയിട്ട് നമുക്ക് യോഗയ്ക്ക് സാധിക്കുന്നുമുണ്ട് കാരണം ഇപ്പം നമ്മുടെ ജീവിതശൈലി യോഗ ചെയ്യുന്നതില് കൂടി നമ്മുടെ ഒരു ജീവിതശൈലിയിൽ മാറ്റം വരുത്തുകയാണ് നമ്മൾ ചെയ്യുക അപ്പം അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മടെ ജീവിതത്തിലും ഉണ്ടാകും നമ്മുടെ ശാരീരത്തിനുമുണ്ടാകും മാനസികമായിട്ടുമുണ്ട് അപ്പം അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റങ്ങള്ക്ക് തുടക്കം കുറിക്കുക അപ്പം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുമ്പം ഷുഗറ് അങ്ങനെയുള്ള കൊളസ്ട്രോളുകൾ അങ് അതൊക്കെ ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാരണങ്ങൾ കൊണ്ടാണ് അപ്പം യോഗയെന്ന് പറയുന്നത് അതിനെ കണ്ട്രോള് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ട് അവർ യോഗ കൊണ്ട് നമ്മൾ മാനസികമായിട്ടുള്ള ശാരീരികവുമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റുക എന്നുള്ളത് തന്നെയാണ് അവർ ചെയ്യുക അപ്പം യോഗ ഒരുപാട് നല്ല ഒരു മരുന്ന് തന്നെയാണ് ജീവിതശൈലി രോഗങ്ങള്ക്ക് യോഗ അത് മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തില്നിന്നും ശാരീരികമായിട്ടുള്ള പിരിമുറുക്കത്തില് നിന്നും ഒക്കെ നമുക്ക് ഒരു മോചനം തരുവാനായിട്ട് യോഗയ്ക്ക് സാധിക്കും അത് ഇപ്പോൾ എന്ത് രോഗവും ആയിക്കോട്ടെ അത് യോഗ ഒരു നല്ല ഒരു മറുമരുന്ന് തന്നെയാണ് അത് കുറച്ചു കൂടിയ പക്ഷെ നമ്മൾക്ക് അറിയാം യോഗയെന്ന് പറയുന്നത് പക്ഷെ ഒരു ഇതായിട്ട് നമ്മുടെ ഒരു ഈ കാലഘട്ടത്തിലൂടെ വന്നിട്ടില്ല അപ്പം ഒരുപാട് കുറച്ചു കൂടിയൊക്കെ യോഗയുടെ പ്രസക്തി നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുകയും യോഗ ചെയ്യേണ്ട ഗുണങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരുപാട് പരാജയപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ പക്ഷെ അങ്ങനെ അതൊക്കെ മാറിയിട്ട് ഒരുപാട് നമ്മൾക്ക് യോഗയുടെ പ്രസക്തി എന്താണ് അതിന്റെ ആവിശ്യകത എന്താണ് എന്നൊക്കെ നമ്മൾ സാധാരണ ജനങ്ങളെ അറിയിക്കേണ്ട അറിയിച്ചാല് ഒരുപാട് അത് ഒരുപാട് പേര്ക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം അത് കുറച്ചു കൂടിയൊക്കെ നമ്മൾ അതിനെ വേണ്ടുന്ന രീതിക്ക് പരിഗണിക്കുക എന്നുള്ളത് തന്നെയാണ് യോഗ ചെയ്യുന്നതില്കൂ ടി മാനസികമായിട്ടുള്ള ഒരു വളര്ച്ച നമ്മൾക്ക് യോഗ ചെയ്യുന്നതില് കൂടിയുണ്ടാകും ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളും മാനസികമായിട്ടുള്ള മാറ്റങ്ങളും അത് തന്നെയാണ് നമ്മുടെ പല രോഗങ്ങള്ക്കുമുള്ള മരുന്നെന്ന് പറയുന്നത് നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പം നമുക്ക് ഈ യോഗ ചെയ്യുന്നതില് കൂടി നമ്മുടെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് മാറ്റാനും ഈ യോഗ നമുക്ക് സഹായിക്കും അപ്പം എനിക്ക് ഇപ്പം തന്നെ നമ്മൾക്ക് യോഗ ചെയ്യുന്നതില്ക്കൂടി എനിക്ക് ശ്വാസംമുട്ടലൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പം യോഗ ചെയ്തു എനിക്ക് അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് മൈന്ഡ് യോഗ ചെയ്യുന്നതില് കൂടി നമുക്ക് അതിന്റെ ശ്വാസം മുട്ടൽ തടയാനുള്ള കാര്യങ്ങളൊക്കെ ഞാന് ചെയ്ത് അങ്ങനെ ഒരുപാട് എനിക്ക് യോഗയില് കൂടി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളൊക്കെ ആയാലും ഒരുപാട് പേർ യോഗയില് കൂടിയൊക്കെ അവര്ക്ക് അവരുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ മാറിയതായിട്ടുള്ള അനുഭവങ്ങൾ അവർ ഞാനുമായിട്ട് പങ്കു വച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാന് നമുക്ക് യോഗയ്ക്ക് സാധിക്കും പക്ഷെ അതിന് വേണ്ടുന്ന കുറച്ചുകൂടിയൊക്കെ യോഗ എന്ന ഒരു ഇതിനെ നമ്മൾ കുറച്ചുകൂടിയൊക്കെ ഒരു ഇത് കൊടുക്കണം എങ്കിൽ മാത്രമേ ഒരുപാട് ഒരുപാട് പേര്ക്ക് ഇപ്പം യോഗാ എന്താണെന്നും അതിന്റെ മാറ്റങ്ങൾ എന്താണെന്നോ എന്നൊന്നും ഒരുപാട് പേര്ക്ക് അറിയില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വച്ചാൽ അവര്ക്ക് അതിന്റെ ക്ലാസുകൾ കൊടുക്കുക കുറച്ചു കൂടിയൊക്കെ എന്താണ് യോഗയെ പറ്റി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എങ്കിൽ മാത്രമേ അവര്ക്ക് അതിന്റെ അഡ്വാൻറ്റേജ് മനസ്സിലാക്കിയവർ യോഗയിലേക്ക് പോവത്തുള്ളു ഒരുപാട് രോഗങ്ങള്ക്ക് യോഗ ഒരു നല്ല മരുന്ന് തന്നെയാണ് അപ്പം പക്ഷെ അത് നമ്മൾ കൂടി കുറച്ചു കൂടിയൊക്കെ അതിനെ കണ്വിന്സിങ്ങ് ആയിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാന് കൂടി നമ്മുടെ ശ്രമിക്കണം യോഗ കൊള്ളാം ഇല്ലെങ്കിൽ അത് നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ മറിച്ചു അവര്ക്ക് അത് മനസ്സിലാക്കാന് അവര്ക്ക് അത് തെളിവ് സഹിതം അവര്ക്ക് അത് നമുക്ക് മനസ്സിലാക്കി കൊടുക്കുവാന് സാധിക്കുന്നതില് നമ്മൾ പരാജയപ്പെട്ടിരിക്കുകയാണ് പക്ഷെ ഒരുപാട് അങ്ങ് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാന് സാധിക്കുന്ന ഒന്ന് തന്നെയാണ് യോഗ അപ്പം ഒരു നല്ല ഒരു മരുന്നാണ് നമ്മുടെ ജീവിതത്തില് പല കാര്യത്തിനും യോഗ ദിവസവും ചെയ്യുന്നതില് കൂടി ഒരുപാട് മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിലും വരുത്തുവാന് സാധിക്കും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് യോഗയില് കൂടി ചെയ്യാന് സാധിക്കുന്നുണ്ട് അത് ശാരീരികമായിട്ടുള്ള നമ്മൾ പല പ്രശ്നങ്ങളായാലും മനസികമായിട്ട് നമ്മൾ ഒന്ന് ആക്റ്റീവ് ആകാനായാലും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾക്ക് വരുത്തുവാന് സാധിക്കുന്ന ഒന്നാണ് ഈ യോഗയെന്ന് പറയുന്നത് ഇപ്പം പക്ഷെ അത് കുറച്ച്കൂടിയൊക്കെ അത് പോസിറ്റീവുമായിട്ട് യോഗയെ നമ്മൾ കാണുകയും ഡെയിലി നമ്മൾ കുറച്ച് സമയം ഒരു ഒരു മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് നമ്മൾ അതിന് വേണ്ടി മാറ്റി വയ്ക്കാനാണെങ്കിൽ നമ്മുടെ ജീവിതത്തില് ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തും വരും എന്ന് തന്നെ ഉറപ്പാണ് ഒരു അപ്പം കുറച്ച് സമയം നമ്മൾ അത് യോഗയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കണം എങ്കിൽ മാത്രമേ നമ്മൾ അല്ലാതെ യോഗ ചെയ്താൽ ജീവിത ശൈലിയില് മാറ്റം വരും എന്നുറപ്പായിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്നത് തെറ്റാണ് അപ്പം നമ്മൾ കുറച്ച് സമയം നമ്മൾ അതിന് വേണ്ടി നമ്മളും കഷ്ടപ്പെട്ടാല് മാത്രമേ അതിന് പ്രയോജനമുണ്ടാകൂ അപ്പം നമ്മൾ അതിന് വേണ്ടി ചെയ്താല് ഉറപ്പായിട്ടും അതിന്റെ ബലം നമുക്കുണ്ടാവും അത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് അപ്പം അതിന് വേണ്ടി ശ്രമിക്കുക നമ്മുടെ ഒരുപാട് രോഗശൈലി ഷുഗറായാലും കൊളസ്ട്രോളായാലും ബിപി അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ഒരു യോഗ എന്ന് പറയുന്നത് ഒരു മറുമരുന്ന് തന്നെയാണ് അത് വേണ്ട രീതിക്ക് ഉപയോഗിച്ചാൽ നല്ല ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് അപ്പം അതിന് വേണ്ടി ശ്രമിക്കുക അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതശൈലി രോഗങ്ങള്ക്ക് യോഗ ഒരു മറുമരുന്ന് തന്നെയാണ് അപ്പം എന്റെ അനുഭവം അങ്ങനെയാണ് എന്റെ സുഹൃത്തുക്കളുടെ അനുഭവവും അവർ പറഞ്ഞതും അങ്ങനെ തന്നെയാണ് അവര്ക്ക് ഒരുപാട് പേര്ക്ക് ഈ യോഗ എന്നു പറഞ്ഞ ഇതുവഴി ഒരുപാട് ജീവിതമാറ്റങ്ങൾ വരുത്താൻ അവര്ക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളും കേള്ക്കുന്നവർ കുറച്ചു കൂടി യോഗയെ സീര്യസ് ആയിട്ട് എടുത്താൽ നിങ്ങളുടെ ജീവിതത്തിലും വലിയ വലിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് അത് സാധിക്കും